കയ്യോ കാലോ ഒടിഞ്ഞ് കഴിഞ്ഞാല് പെട്ടന്ന് ചെയ്യ്ന്നത് ഹോസ്പിറ്റല്ലെത്തിക്കാന് ശ്രമിക്കുക എന്നുള്ള കാര്യമാണ് അപ്പം പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റല്ലെത്തിക്കും പിന്നെ ഉള്ള കാര്യങ്ങളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കയ്യിലാണോ കാലിലാണോ ഒടിവ് വരുന്നതെന്ന് നോക്കിയിട്ട് ഒടിവ് കുറച്ച് നാള് പ്ലാസ്റ്റര് ഓഫ് പാരീസ് ചെയ്ത് കഴിഞ്ഞാൽ നോര്മലാകുന്നതാണ് എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റര് ഓഫ് പാരീസ് ചെയ്യും ഇല്ല എന്നുണ്ടെങ്കില് ഒട്ടും ജോയിൻ ചെയ്യാൻ പറ്റ്ന്നില്ലാന്നൊള്ളതാണെങ്കില് കമ്പി ഇടുവോ അങ്ങനെന്തേലുവൊക്കെയാരിക്കും ചെയ്യാ ഇല്ലത് ഹോസ്പിറ്റലെത്തിക്കാന് പറ്റാത്ത സിറ്റുവേഷനാണ് ഈ കയ്യോ കാലോ ഒടിഞ്ഞാള്ക്ക് എങ്കിലല്ല ഹോസ്പിറ്റലിൽ പറയുന്ന ഗ്രാമത്തിലെ ഹോസ്പിറ്റലിൽ ഒന്നും അടുത്തില്ല എന്നുണ്ടെങ്കിൽ തന്നെ ചെയ്യുന്നത് പണ്ട് കാലങ്ങളില് ചെയ്ത് വന്ന ഈ മുത്തശ്ശിമാരും മുതുമുത്തശ്ശിമാരും ഒക്കെയായിട്ട് പണ്ട് ഗ്രാമത്തിൽ തന്നെ ചെയ്ത് വന്നിരുന്ന ഔഷധ ഗുണങ്ങള് വെച്ചിട്ടോ അല്ലെങ്കില് ഔഷധങ്ങള് വെച്ചിട്ടോ ചെയ്തിരുന്ന ഓരോ എന്താ പറയുക ഓരോ മരുന്നുകളുണ്ട് അപ്പം അതെക്കെ ചെയ്യുവായിരിക്കും ചെയ്യുക അപ്പം എന്നാലും ഈ കൈ കെട്ടി വെക്കാൻ കയ്യാണേലോ കാലാണെങ്കിലോ അനങ്ങാണ്ട് കെട്ടി വെക്കുന്ന ഒരു സിസ്റ്റമുണ്ട് പിന്നത് കഴിഞ്ഞിട്ട് എണ്ണ ഒഴിച്ച് എണ്ണ വെച്ചിട്ടോ ഇങ്ങനെ ഔഷധ ഗുണങ്ങള് ഔഷധങ്ങള് വെച്ചിട്ടോ എന്തോ കഷായം ഉണ്ടാക്കാം അല്ലെങ്കിൽ ഈ മരുന്നുണ്ടാക്കി വെക്കുക എന്നുള്ളതൊക്കെ അപ്പം ഹോസ്പിറ്റൽ ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ നമ്മള് പെട്ടന്ന് ഹോസ്പിറ്റലിൽ തന്നെ എത്തിക്കുക ആയിരിക്കും അപ്പത്തേന് മെച്ചപ്പെട്ട നമ്മക്ക്കള എന്താ പറയുക ട്രീറ്റ്മെൻറ്റ് അവിടുന്ന് തന്നെ കിട്ടും വീട്ടിലെത്തിക്കാന് പറ്റാത്ത സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ വീടുകളിൽ ഇപ്പം പണ്ട് ഓഷധങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വീടുകളാണ് അപ്പം കറക്റ്റായിട്ടെന്ത് ചെയ്യണമെന്നറിയാമെന്നുള്ള ആള്ക്കാരാണെന്നൊണ്ടെങ്കില് അത് വീട്ടിൽ തന്നെ ആയിരിക്കും ചെയ്യുക ചികിത്സയ്ക്കും രോഗമുക്തിക്കുമായി എന്ത് ചെയ്യും എന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രാമത്തിലുള്ള ആള്ക്കാരാകുമ്പത്തേനും പൈസയ്ക്ക് ബുദ്ധിമുട്ടൊള്ള ആള്ക്കാരാണെന്നൊണ്ടെങ്കില് അപ്പൊ എല്ലാരും കൂടായിട്ട് കുറച്ച് പൈസയൊക്കെ ശേഖരിച്ച് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കും പിന്നൊര് രോഗ മുക്തിയ്ക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റുമെന്റ്കളാണ് ഹോസ്പിറ്റല്ലായാലും നടക്കുക അപ്പം വീട്ടിലാണെങ്കിലും അതിന്റെ ആരോഗ്യം തിരിച്ച് കിട്ടാന് വേണ്ടിയിട്ട് ഇപ്പം എന്തെങ്കിലും ഒടിവോ ചതവോ ഒടവോ ഒടിവ് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പഴയത് പോലെ ആക്കിയെടുക്കാൻ പറ്റുന്നല്ല പക്ഷെ എന്നാലും കുറച്ചും കൂടെ മെച്ചപ്പെട്ത്തി എടുക്കാമെന്നുള്ള ഒരൊറ്റക്കാര്യം മാത്രം നമുക്ക് ചെയ്യാന് പറ്റുകയുള്ളു അപ്പം അതിട്ട് രോഗ മുക്തിയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള മരുന്ന് കൊടുക്കുക കറക്റ്റായിട്ടുള്ള പഥ്യം നോക്കുക കറക്റ്റായിട്ടുള്ള ഫുഡ് കഴിക്കുക കറക്റ്റായിട്ട് റെസ്റ്റ് എടുക്കുക ഇങ്ങനെ ഉള്ള കാര്യങ്ങളാണ് അപ്പം ഈ കയ്യോ കാലോ ഒടിയുന്ന ആള് കാലിന് കൂടെ നിന്ന് സപ്പോര്ട്ട് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പം കറക്റ്റായിട്ട് ഫുഡ് കൊടുക്കാനാണെങ്കിലും കറക്റ്റായിട്ട് അവരുടെ ശുശ്രൂഷകള് ചെയ്യാൻ വേണ്ടീട്ടാണെങ്കിലും കറക്റ്റായിട്ടവരെ സംരക്ഷിക്കാന് വേണ്ടിയിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങള്ക്കാണെങ്കിലോ അവരുടെ കൂടെ നിൽക്കുന്ന കുറച്ചാൾക്കാരെ സപ്പോര്ട്ടിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ് അവരുടെ കൂടെ നിൽക്കാൻ കുറച്ചൽക്കാര് ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പം